ഹലോ നമസ്കാരം ജി എസ് ടി ഹെൽപ്ലൈൻ അല്ലേ ഞാൻ ഇങ്ങനെ ഒരു പിന്നെ ഒരു വ്യാപാരിയാണ് എനിക്ക് ജി എസ് ടി ഇതുവരെ ലഭിച്ചിട്ടില്ല ജിഎസ്റ്റീൻ്റെ പിന്നെ രജിസ്ട്രേഷനൊന്നും ലഭിച്ചിട്ടില്ല അപ്പം അത് എത്രയും പെട്ടെന്ന് ഒന്നു ആക്കിത്തരാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു അപ്പം എത്രയും പെട്ടെന്ന് ആക്കാമെന്ന് പറഞ്ഞിട്ട് അതൊന്നും റെഡി ആയിട്ടില്ല അപ്പം ജിഎസ്റ്റീൻ്റെ കാര്യങ്ങൾ എന്തെല്ലാം റെഡിയായാൽ മാത്രമേ എനിക്ക് ബിസിനസ്സ് മുന്നോട്ട് കൊണ്ടുപോവാൻ പറ്റുള്ളൂ എപ്പോഴത്തേക്ക് ആക്കാൻ പറ്റും എന്ന് അറിയാൻ പറ്റുമോ ഓഫീസിലെ സ്റ്റാഫിനെ ഞാൻ വിളിച്ചിരുന്നു അപ്പം പറഞ്ഞു നേരിട്ട് ഓൺലൈൻ ആയിട്ട് ഹെൽപ്പ് ഡെസ്ക്കിലേക്ക് നേരിട്ട് വിളിക്കണമെന്ന് പറഞ്ഞു കൊണ്ടാണ് ഞാൻ ഇപ്പോൾ വിളിച്ചത് എൻ്റെ ബിസിനസ്സെല്ലാം ഇപ്പം കുറച്ചു പുറകോട്ട് പോവുകയാണ് അപ്പം ജി എസ് ടി ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് അത് മുന്നോട്ട് കൊണ്ടു പോവാൻ പറ്റുള്ളൂ അപ്പം ബിസിനസ് എല്ലാം പിന്നെ വേറെ ഉള്ള ആൾക്കാരുമായിട്ട് ഡെൾ ആയിരിക്കുകയാണ് ഇപ്പം എല്ലാം പ്രശ്നങ്ങളാണ് അപ്പം എത്രയും പെട്ടെന്ന് ഒന്ന് രജിസ്ട്രേഷൻ റെഡി ആക്കണം അതിന് വേണ്ടിയിട്ടാണ് വിളിച്ചത് ഓക്കെ